ഹലോ ആ ഇലക്ട്രോടെ മാനേജരല്ലേ ആ ഞാന് കഴിഞ്ഞ ആഴ്ച്ച നിങ്ങളുടെ ഷോപ്പിൽനിന്ന് എൻ്റെ ബാങ്കിലേക്ക് രണ്ട് പനാസോണിക്കിൻ്റെ ഏ സി വാങ്ങിയിരുന്നു ഒന്നര ട്ടണ്ണിൻ്റെ രണ്ട് ഏ സി ആ അതേയതെ അത് അന്ന് തന്നെ വന്ന് നിങ്ങളത് ഫിറ്റ് ചെയ്ത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സ്റ്റാഫ് വന്നത് പിന്നെ ഫിറ്റ് ചെയ്ത് തന്നത് ഇപ്പം അതിൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് അത് കറക്റ്റായിട്ടല്ല വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാട്ടർ പൈപ്പ്ലൂടെ വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ലീക്ക് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ പിന്നേ ബാങ്കിൻ്റെ സ്വിച്ച് ബോഡും അതെപോലെ തന്നെ ബാങ്കിൻ്റെ പവർ സ്വിച്ചുകളൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് ഇപ്പം നിങ്ങളുടെ അതിൻ്റെ വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടർ പൈപ്പിലൂടെയല്ലാതെ ഏസീയുടെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ ആ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് ഞാനിന്നലെ ഷോപ്പില് വന്ന് നേരിട്ട് പറഞ്ഞപ്പോൾ ഇന്ന് അത് തീർത്ത് തരാമെന്ന് നിങ്ങൾ പറഞ്ഞതാണ് പക്ഷെ അത് ഇത് വരെ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല ആ എനിക്ക് ഇന്ന് ഒരു അഞ്ചു മണിക്കുള്ളില് ആ പ്രശ്നം നിങ്ങള് തീർത്ത് തരണം അല്ലാന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടാവും